ഞാൻ പുസ്തകങ്ങൾ കൂടുതലും ഇ ബുക്സ് എന്ന രീതിക്ക് ക്രോമിൽ നിന്നും ഡൗൺ ലോഡ് ആക്കി വായിക്കാറാണ് പതിവ് കാര്യം ബുക്കുകൾ നമുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും ഭയങ്കര പൈസ കൊടുത്ത് വായിക്കുമ്പൊ എക്സ്പെൻസീവ് ആണ് ബുക്കുകളൊക്കെ നല്ല നല്ല ബുക്കുകളൊക്കെ അതുകൊണ്ടുതന്നെ ഞാൻ കൂടുതലും ഡൗൺ ലോഡ് ചെയ്തിട്ട് ഇ ബുക്കെന്ന രീതിയിൽ ഫോണിൽ നോക്കി വായിക്കാറാണ് ചെയ്യാറ് പിന്നെ എൻ്റെ സമീപത്ത് സെക്കൻഡ് ഹാൻഡ് ബുക്ക് കിട്ടുന്ന സ്ഥലം ഉണ്ട് പാലക്കാട് ടൗണിൻ്റെ അവിടെ മിഷൻ സ്കൂളിൻ്റെ അവിടെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് കിട്ടുന്നതുണ്ട് അത് നല്ലതാണ് എങ്കിലും അതിനും അത്യാവശ്യം ഇപ്പോൾ ഒരു ആയിരം രൂപയുടെ ബുക്കൊരു അഞ്ഞൂറു രൂപക്കൊക്കെ പറഞ്ഞാലും അഞ്ഞൂറു രൂപ എനിക്ക് അത്ര അഫോർഡബിളായി തോന്നാറില്ല വീട്ടിലെ സാഹചര്യം കൊണ്ടെനിക്ക് അഫോർഡബിൾ അല്ലാത്തതു കൊണ്ട് ഞാൻ കൂടുതലും ഇ ബുക്സ് ആണ് വായിക്കുന്നത് ഇ ബുക്സ് ആകുമ്പോൾ അഫോർഡബിളുമാണ് കൺവീനിയെൻ്റുമാണ് നമുക്ക് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഇ ബുക്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക പക്ഷെ എനിക്കിഷ്ടം ഇൻഹാൻ്റായിട്ടുള്ള ബുക്ക് വായിക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ശേഖരിച്ചുവെച്ച സ്വന്തം പൈസ കൊണ്ടങ്ങനെ വേടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് അച്ഛനമ്മേനെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിക്കാണ് ഞാൻ ആലോചിക്കുന്നത്